പാത്രം ഒരു ദിവസത്തിൽ കുറേ പ്രാവശ്യം പാത്രം കഴുകണം രാവിലെ മുതലേ ഉണ്ടായിരുന്നില്ലേ വീട്ടിൻ്റെ ചായേൻ്റെ പാത്രം ചോറിൻ്റെ പാത്രം പിന്നെ വൈകുന്നേരം ചായ ആയി രാത്രി ചോറായി പിന്നെ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായി ഇത്രയും ഉണ്ടാന്ന് പാത്രം വടിക്കാൻ വടിച്ച് വടിച്ച് വടിച്ചിട്ട് നമുക്കൊരു വകയാവും പിന്നെ അങ്ങനെയെങ്ങും പാത്രം വടിച്ചിട്ട് ഒരു പാത്രം വടിച്ചു വെച്ചിട്ട് പിന്നെ അടുത്തതിനെ നോക്കുമ്പോഴേക്ക് അടുക്കളക്ക് വരുമ്പോൾ ഉണ്ടാവും വീണ്ടും പത്രം വടിക്കാൻ വെച്ചിട്ട് അത് ഒരു ഭയങ്കരം തന്നെ എത്ര പാത്രം വടിച്ചെങ്കിലും പാത്രം തീരാനെ ഇല്ല അത് നല്ല കഴുകി വൃത്തിയാക്കി വയ്ക്കേണ്ടേ സോപ്പിട്ടിട്ട് ഇപ്പോൾ പിന്നെ മുന്പത്തെ കാലത്തൊന്നും നമുക്ക് പാത്രങ്ങൾ തേക്കാൻ എന്തെല്ലോ വീട്ടിന്റെ തന്നെ പുക അടുപ്പ് അടുപ്പിൻ്റെ കരിയിൽ നമ്മൾ തേച്ചിട്ട് എന്നാലും എത്ര നല്ലോം വെളുത്തോണ്ട് ഉണ്ടായി ഗ്യാസ് ഒന്നും ഉണ്ടായിട്ടില്ല അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചോറും എല്ലാം ഇതും അരി ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്നത് മുൻപ് അടുപ്പ് തന്നെ അടുപ്പ് കത്തിച്ചിട്ടാണ് അപ്പോൾ എല്ലാം അടുപ്പ് കത്തിക്കാനൊന്നും കിട്ടുവോ കിട്ടിയ കാട്ടിലും പറമ്പത്തും പോയിട്ട് അവിടെ നിന്ന് ഈ ചപ്പ് ഇല പച്ചയിലയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവില്ല ആ പച്ചയില കൂട്ടിയിട്ട് അതിനെ കൊണ്ട് അടുപ്പ് തീ ഊതി ഊതിയിട്ട് കണ്ണെല്ലാം ഇതാവും അങ്ങനെയെല്ലാം ആക്കിയിട്ടാണ് തീയാക്ക് തീയാക്കിയിട്ട് നമ്മൾ സാധനമെല്ലാം വെച്ചിട്ട് നമ്മൾ തിന്നുക അത്ര അപ്പോൾ പത്രത്തിലെല്ലാം ഭയങ്കരം കരി ഉണ്ടാവും ഈ കരിയെടുക്കാൻ തന്നെ നമുക്ക് മതിയാവും തേച്ച് തേച്ച് തേച്ചിട്ട് കരി പോവുവോ എത്ര കരി ഉണ്ടാവും പല പാത്രം ചോറെല്ലൊം ഉണ്ടക്കിയതിന്റെ ഭസ്മം കൊണ്ട് വെണ്ണീരിനെക്കൊണ്ടും പാത്രം തേച്ചും നമ്മൾ തെങ്ങേൻ്റെ ചേരി എടുത്തു ആ ചേരിയിൽ തേച്ചിട്ട് പിടിപ്പിച്ച് നന്നായി വൃത്തിയാക്കിയിട്ട് വയ്ക്കും ഇപ്പം ആണെങ്കിൽ ഏതെല്ലാം തരത്തിൻ്റെ ഇത് ഉണ്ട് നമുക്ക് ഒരുപാട് വ്യത്യാസമായി കാലം മാറിയില്ലേ ഇപ്പോഴെല്ലാം ഗ്യാസ് ആണ് ഗ്യാസിൽ നമുക്ക് എത്ര നിമിഷ നേരത്തിൽ ചായയോ ദോശയോ എന്ത് വിഭവങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ അച്ഛനും അമ്മയും എല്ലാം കഷ്ടപ്പെട്ടത് വിചാരിക്കുമ്പോൾ അയ്യോ സങ്കടമായി പോവുന്നു കത്തിക്കാനുണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കാൻ സാധനങ്ങളും ഉണ്ടാവില്ല പിന്നെ കുറേ മക്കളും ഇത്രയും ആൾക്ക് വേവിക്കാനുള്ള കഷ്ടപ്പാട് അവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഇപ്പോൾ ആ കണക്കിൽ എലാവർക്കും നല്ല സുഖ ജീവിതം പണം വേണം അത്രെയേ ഉള്ളൂ എല്ലാം എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ പൈസ ഉണ്ടെങ്കിൽ ഗ്യാസിൽ വയ്ക്കുക മിക്സി ഉണ്ട് അരക്കാൻ എല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് ഉപ നമുക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ നിമിഷ നേരത്തില് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്നു മുൻപ് അതുപോലെയല്ലല്ലോ പിന്നെ ഇപ്പം പാത്രം തേച്ചു വൃത്തിയാക്കി വെച്ചു നമ്മൾ ഒരുപാട് ഇപ്പോൾ എന്ത് എക്സൊ ഉണ്ട് സബീന ഉണ്ട് എന്തെല്ലോ തരത്തിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ എണ്ണമയം ഉണ്ട് അതെടുക്കാൻ മുൻപെല്ലാം എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മക്ക് ഉരച്ച് ഉരച്ച് ഉരച്ച് മതിയാവും അന്നാലും ഇത് വൃത്തിയാവുവോ ഒന്നും ആവില്ല ഇപ്പോൾ ആണെങ്കിൽ അതിനെ തേക്കാൻ നിമിഷ നേരത്തിൽ ആ എങ്ങനത്തെ എണ്ണമയവും പോകുന്നങ്ങനത്തെ ഓരോ പരസ്യം കാണുന്നില്ലേ നമ്മൾ ടി വിയിലെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ആദ്യം സാ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പാത്രം എങ്ങനെയാണ് വെച്ചിനു അതുപോലെ തന്നെ ഉണ്ടാവും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒക്കെ എണ്ണ മയവും പോയി എല്ലാം പോയി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വയ്ക്കാം അങ്ങനെ ഇന്നിപ്പോൾ ഒരുപാട് കാലം മാറി പാത്രങ്ങളും പാത്രത്തിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളും എല്ലാം നന്നായിട്ട് ഉണ്ടാക്കാനും എല്ലാവർക്കും ഒരു ആർക്കും ഇപ്പോൾ ഉണ്ടാക്കാൻ എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും സ എന്ത് ഭക്ഷണം ഉണ്ടാക്കാനും ഒരു കുഴപ്പമില്ല ഇപ്പോൾ പിന്നെ പാത്രം വൃത്തിയാക്കിയിട്ട് വയ്ക്കാനും ഇനി എത്ര വേണമെങ്കിലും ചെയ്യാമല്ലോ മുൻപത്തെ കാലത്തിനേക്കാൾ ഒരുപാട് മാറിയില്ലേ ഇപ്പോൾ ഇപ്പോൾ മുൻപത്തെ കാലത്തേ നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഇത്രയും വലുതാക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാർ കത്തിക്കാനുണ്ടാവില്ല തിന്നാനുണ്ടാവില്ല വേവിക്കാനുണ്ടാവില്ല അത് ഇപ്പോഴാണെങ്കിൽ എന്ത് വേണമെങ്കിലും റെഡി ഏത് പാത്രം കുക്കർ പിന്നെ ഗ്യാസ് ഗ്യാസിൽ വെച്ചിട്ട് ഇതാ ചോറും എല്ലാ നിമിഷ നേരത്തിൽ ഉണ്ടാക്കി പാത്രം ഒരു ദിവസത്തിൽ ഇപ്പോൾ എല്ലാം പിന്നെ അപ്പളക്കപ്പളെ ഇതാക്കി കൂട്ടി വയ്ക്കലില്ലല്ലോ ചോറ് വെച്ചു അപ്പോൾ അവിടെ പാത്രം കഴുകി ഒട്ടിപ്പിടിക്കാനൊന്നും ഇല്ലല്ലോ എപ്പോളത്തെയും എന്ത് വേണമെങ്കിലും ലിക്യുഡും പൊടിയും അതും ഇതും എല്ലാം ഉണ്ടല്ലോ ഇതിലിട്ട് ചെയ്യുമ്പോൾ എന്തുവാണ് നന്നായി വൃത്തിയാക്കി വയ്ക്കാൻ അതാണ് ഇന്ന് കാലം മാറിയിട്ട് ഇന്നിപ്പോൾ നന്നായിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കാനും പാത്രം കഴുകി പാത്രമെല്ലാം നല്ല പുതിയ പാത്രം പോലെ ഉണ്ടാക്കി വക് എല്ലാം ആവുന്നുണ്ട്